കുട്ടികളുടെ മെച്ചപ്പെട്ട വികസനത്തിന് വേണ്ടി പ്രാദേശിക ഭാഷയിൽ ടിവീലും ഓൺലൈനിലും കൂടുതൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വേണമെന്ന് അഭിപ്രായം ഇന്ന് കുട്ടികൾ ഓൺലൈൻലായാലും ടീവീലായാലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ഇത്തരം മീഡിയകളാണ് അതുകൊണ്ട് തന്നെ ഈ മീഡിയകൾ ഉഭ്ര മാധ്യമ ങ്ങളിലൂടെ വിദ്യാഭ്യാസപരമായി മെച്ചപ്പെട്ട് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങള് ഉൾക്കൊള്ളിക്കുന്നത് ഒക്കെ നന്നായിരിക്കും

എഴുതിയോ പ്രസംഗിച്ചോ പഠിപ്പിക്കുന്നതിന് പകരം പ്രവർത്തി പരിചയത്തിലൂടെ നേരിട്ട് കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും ഇതിന് ഏറ്റവും നല്ല മാർഗമായിട്ട് ടി വി ഓൺലൈൻ എന്നിവ സ്വീകരിക്കാവുന്നതാണ് നേരിട്ട് കണ്ട് ഇത് പരിചയപ്പെടുന്നത് മൂലം ഇവിടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടും എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്